റെസ്റ്റോറന്റുകള് വര്ധിച്ചുവരുന്നതിനനുസരിച്ച് കാർഷിക മേഖലയെ കൂടുതല് വളർത്താനായിട്ടു സാധിക്കും കാർഷിക മേഖലയിലുള്ള സാധനങ്ങള് ഓരോ ഭക്ഷ്യവസ്തുക്കളാക്കി ചക്ക മാങ്ങ തേങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരതു കൊണ്ടുപോയി അതിനു വേണ്ട ഇതെല്ലാം നൽകി അവര് അതിനെ റെസ്റ്റോറന്റുകളിലേക്കും എല്ലാം കൊണ്ടുപോയി മറ്റുള്ളവർക്കതു വിതരണം ചെയ്യും ഇപ്പോള് ഒത്തിരിയേറെ റെസ്റ്റോറന്റുകള് വരുന്നുണ്ട് നല്ല നല്ല സാധനങ്ങള് അതുകൊണ്ട് മനുഷ്യർക്ക് കിട്ടുന്നുമുണ്ടത് കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നുവച്ചാല് കാർഷിക മേഖലയെ നന്നായി കൊണ്ടുപോകാനായിട്ടു തന്നെ സാധിക്കും റെസ്റ്റോറന്റുകളൊക്കെ കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നങ്ങള് കൂടുതലായിട്ട് നമ്മള്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ അതിനുള്ള വിലകളും കൂടുതലായിട്ടു നൽകും റെസ്റ്റോറന്റ് നമ്മുടെ പരിസരത്തും നമ്മുടെ നാട്ടിലും വളരുന്നുണ്ട് എങ്കിലും അത്രമാത്രം ആളുകൾക്ക് വളർച്ചയുണ്ടെന്നുള്ളതാണ് അതിന്റേതായ സാധ്യതകള് അതെന്നാന്നുവച്ചാല് റെസ്റ്റോറന്റ് കൂടുമ്പോൾ ഒത്തിരിയേറെ മന്ഷ്യര് സാമ്പത്തികമായിട്ട് ഉയര്ച്ചയിലേക്കു വരുമെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് റെസ്റ്റോറന്റുകള് കടകള് എല്ലാം കൂടുതലായിട്ടു വരുന്നത് ഇപ്പോള് തന്നെയാണേലും ഒത്തിരിയേറെ റെസ്റ്റോറന്റുകളിപ്പോള് നിലവില് വന്നിട്ടുണ്ട് എല്ലാത്തിനും നല്ല രീതിയിലുള്ള വളർച്ചയും ഉണ്ടെന്നാണ് എനിക്കു പറയാനുള്ളത് റെസ്റ്റോറന്റുകള് നാട്ടില് വരുന്നതിന് റെസ്റ്റോറന്റുകള് ഒന്നെന്നു പറഞ്ഞാലിപ്പോള് നമ്മള്ക്കാർക്കും യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എല്ലാവരുടേതായ കാര്യങ്ങളിലൂടെ അവര് ചെയ്ത് നമുക്ക് നല്ല രീതിയില് നമ്മുടെ നാടിന് പുരോഗതി വരണമെങ്കിൽ അങ്ങനെയുള്ള ഓരോ സംരംഭങ്ങള് ഉണ്ടായി എങ്കിൽ മാത്രമാണ് കാർഷിക മേഖലയെ അത് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളു കാർഷിക മേഖല കർഷകര് കൃഷി ചെയ്തു എന്നു പറഞ്ഞാല് ഇങ്ങനെയുള്ള സാധനങ്ങള് വിറ്റഴിക്കാനുള്ള ഒരു ഒരു അവസരങ്ങള് വന്നാല് മാത്രമല്ലേ അതു വിറ്റഴിക്കാന് സാധിക്കുകയുള്ളൂ മനുഷ്യർക്ക് അപ്പോള് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഒത്തിരിയേറെ കൂടി നാട്ടില് വരുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് റെസ്റ്റോറന്റ് വരുന്നതിനെക്കുറിച്ച് എനിക്കു പൊതുവേ നല്ലൊരു അഭിപ്രായമാണുള്ളത് റെസ്റ്റോറന്റ് വര്ധിച്ചുവരുന്നത് കാര്ഷിക മേഖലയെ എങ്ങനെ ബാധിക്കും കാർഷിക മേഖല നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനാണ് സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം